എൻ്റെ വീടിനു ചുറ്റും ഞാൻ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് അതിനു വേണ്ടി ഞാൻ വീട് പരിസരൊക്കെ ആദ്യത്തെ ഒരു ദിവസം ഫ്രീയായിരിക്കുന്ന ദിവസമൊക്കെ വൃത്തിയാക്കും അതേപോലെ ക്ലീനിങ് എല്ലാവിടെയും ക്ലീൻ ചെയ്യും ആദ്യം വീട്ടിലും അതേപോലെ വീട്ടിൻ്റെ പുറത്തെ കൂടെയുള്ള ചെടികളും കാടുകളൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടി വൃത്തിയാക്കും അതേപോലേ ബാക്കി പ്ലാസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിസൈക്കിൾ ചെയ്യാൻ പറ്റണത് റിസൈക്കിളിന് കൊടുക്കും അതൊക്കെ ആ വഴിക്ക് പോകും അതേപോലെ റിസൈക്കിള് ചെയ്യാൻ പറ്റണതൊക്കെ ഞാൻ മാക്സിമം റിസൈക്ക്ലിങ്ങിന് കൊടുക്കാറാണ് പതിവ് അതേപോലെ ഇപ്പോൾ വേറെ എന്താണ് മറ്റേ കൊതുകിൻ്റെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് അതൊക്കെ വൃത്തിയാക്കി ഇടും അതേപോലെ എന്താണ് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ്ങ് പൗഡർ വെള്ളം ശുദ്ധീക ശുദ്ധമാക്കാൻ വേണ്ടി കിണറ്റില് ബ്ലീച്ചിങ്ങ് പൗഡറൊക്കെ ഇടാറുണ്ട് അതേപോലെ എവിടെയെങ്കിലും വെള്ളം കെട്ടിനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മള് അടുക്കളയിൽനിന്ന് പോകുന്ന വെള്ളവും അത് കെട്ടിനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴുക്കി വിടാനുള്ള സംഭവങ്ങളും അവിടെയൊക്കെ ബ്ലീച്ച് ചെയ്തിട്ട് വൃത്തിയാക്കാനും ശുചീകരണത്തില് ശുചീകരിക്കാനൊക്കെ പരമാവധി മാക്സിമം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ പരിസരത്ത് വല്ല മരമോ കൊമ്പോ ഒക്കെ വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വെട്ടിയൊതുക്കി അതേപോലെ ഒക്കെ നീറ്റായി മാക്സിമം എന്നാലാവുന്നത് ഒക്കെ ചെയ്ത് നീറ്റാക്കി വെക്കാനും വൃത്തിയില് സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഞാൻ വീടും പരിസരവുമൊക്കെ